എൻ്റെ പാചകം എന്നു പറഞ്ഞാൽ പാചകം പല രീതിയിൽ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഒരു മ എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല പലരും പല രീതിയിലാണ് പാചകം ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന പാചകം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഞാൻ വയ്ക്കുന്ന കറികളൊക്കെ എല്ലാവർക്കു ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കയാലും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കു ആയാലും പുറത്തുള്ളവരായാലും കഴിച്ചിട്ട് നന്നായിട്ടതൊണ്ട് നന്നായിട്ടൊണ്ടെന്ന് പറയാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടം സാമ്പാർ വെയ്ക്കാനാണ് സാമ്പാറാണ് എനിക്ക് ഏറ്റോം ഇഷ്ടമുള്ള കറി പെട്ടെന്ന് വെച്ച് തീരും പിന്നെ അച്ചാറ് വെളുത്തുള്ളി അച്ചാർ ഞാൻ ഉണ്ടാക്കും വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഞാൻ ആദ്യം എണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് പിന്നീട് മസാലകളെല്ലാം അതിൽ ചേർത്ത് തണുത്തതിന് ശേഷം വിനാഗിരീം കൂടെ ഒഴിച്ചു വെയ്ക്കും പിന്നെ മീനച്ചാറിടാറുണ്ട് പിന്നെ മീനച്ചാറും ഇതുപോലെയൊക്കെ തന്നെയാണ് മസാലയെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് മീനും മസാലയൊക്കെ ചേർത്ത് വറുത്ത് മാറ്റി വെയ്ക്കും അതിന് ശേഷം എല്ലാങ്കൂടെ ഇട്ട് ആ വിനാഗിരി കൂടെ ഒഴിച്ച് അച്ചാറാക്കും പിന്നെ ബുദ്ധിമുട്ടെന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ബിരിയാണി വെയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ശരിക്കതറിയത്തില്ല ബാക്കി ഏകദേശം ഉള്ള എല്ലാം എനിക്ക് നന്നായിട്ടറിയാം എല്ലാം നല്ലതു പോലെ ഞാൻ പാചകം ചെയ്യും ആസ്വദിച്ച് എല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്